എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ച് അതിൻ്റെ വരും വരായികകള് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശക്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് അത് ത്രൂ ഒരുപാട് എന്താ പറയുക വരുന്ന വരാൻ പോകുന്ന ഒരുപാട് ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഇഗ്നോർ ചെയ്യാനും അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിവെൻഷൻ കൊണ്ട് വരാനും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഡ്രോബാക്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ ഏത് രീതിയിൽ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ട് പോവാൻ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് അതേപോലെ ബലഹീനത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവുന്നു എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു സംഭവം ആണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എൻ്റെ സമയം ഒരുപാട് നഷ്ടപ്പെട്ട് പോകുന്നു ചിലപ്പോൾ എനിക്ക് അത്രയും സമയം നഷ്ടമാക്കിയിട്ട് കൂടി എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയൊരു നഷ്ടമായിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നു സോ എൻ്റെ ബലഹീനത അതാണ്